ദീര്ഘകാലമായിട്ട് പിന്നെ എടുക്കുന്ന ഒരു കലാസൃഷ്ടിക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ പ്രചോദനവും ആവേശവും നിലനിർത്താറുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാസൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം നമുക്ക് പറയുകയാണെങ്കിൽ പറയാം മൺപാത്ര നിർമ്മാണം ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂച്ചട്ടി നിർമ്മാണം പിന്നെ അങ്ങനെ നമ്മൾ എന്ത് ഉണ്ടാകണമെങ്കിൽ ഒരു കലാ സൃഷ്ടി തന്നെയാണ് നമുക്ക് കലാ സൃഷ്ടി എന്ന് പറയാം നമ്മൾ എന്തു ഉണ്ടാക്കിയാലും അതിനെ നമുക്ക് കലാ സൃഷ്ടി എന്നൊക്കെ പറയാം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അത് നമുക്ക് താത്പര്യം വേണം അതായത് നമുക്ക് അത് സംഭവം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാക്കാൻ ഉള്ള താത്പര്യം നല്ലവണ്ണം വേണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ വേണം ക്ഷമ പൈഷ്യൻസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് നല്ലവണ്ണം വേണം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യവും നടക്കുകയുള്ളൂ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വേണം പിന്നെ നമുക്ക് സപ്പോർട്ട് വേണം വീട്ടുകാരുടെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും സപ്പോർട്ട് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കലാസൃഷ്ടി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നാണ് എൻ്റെ ഒരു പേർസണൽ ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാൻ ഉള്ളത്